ആ ഹലോ ഞാനേ ഓണ്ലൈനില് നിന്നൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ജീന്സ് ആയിരുന്നു ഐറ്റം ഡെനിമിന്റെ പക്ഷേ എനിക്ക് കിട്ടിയത് സൈസും കറക്റ്റ് അല്ല പിന്നെ കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആ അതെ അതെ ഞാൻ ഓർഡർ ചെയ്തത് കഴിഞ്ഞ വീക്ക് ആയിരുന്നു ആ വന്നത് ഇപ്പോൾ ഇന്നലെയാണ് വന്നത് എനിക്ക് ആ പക്ഷേ അത് ഭയങ്കര വയങ്കരായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് എന്തായാലും പ്രൊഡക്റ്റ് ഞാൻ അങ്ങനെ ഓണ്ലൈനിൽ നിന്ന് പര്ച്ചേസ് ചെയ്യാറില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒ ഒന്ന് ഓർഡർ ആക്കി നോക്കിയതാണ് കിട്ടി കഴിഞ്ഞപ്പോൾ ഫുള് ഡാമേജ്ഡ് ആണ് ആ അതെ അതെ ആ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്കത് റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റ് ആയിട്ട് തന്നാലും മതി ആ അതെ അ ഒട്ടും യൂസ്ഫുൾ അല്ല ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതെ അതെ ആ ഓക്കെ ഓക്കെ